ഹലോ ഹലോ ക്യാബാണോ ഞാന് എന്റെ പേര് അദീന എന്നാണ് എനിക്ക് രാമംകുളങ്ങരയിൽ നിന്നും എനിക്കൊന്ന് എന്താണ് വയനാട് വരെ ഒന്ന് പോവണമായിരുന്നു ഞാനതിന് ക്യാബ് ബുക്കെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ വിളിച്ചത് അപ്പോള് അതിൻ്റെ റെയ്റ്റും കാര്യങ്ങളും ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് അടുത്ത മാസം പതിനെട്ടാം തീയ്യതിയാണ് പോവേണ്ടത് ഒരു അഞ്ച് പേരടങ്ങുന്ന ഒരു ഇതായിട്ടാണ് ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ടുള്ളൊരു പിക്നിക് പോലെ ഞങ്ങൾക്ക് വയനാട് വരെ ഒന്ന് പോവണമായിരുന്നു അപ്പോള് അതിന്ന് നിങ്ങൾക്കത് വരാൻ പറ്റുമോ അപ്പോള് അതിന്റെ റെയ്റ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒന്നു സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങളെ വിളിച്ചത് അപ്പോള് ഞങ്ങളിൽ അവിടെ വയനാട് പോയിക്കഴിഞ്ഞാല് ഞങ്ങള്ക്ക് നാല് അവിടെ സ്റ്റേ ചെയ്യും അപ്പോള് ഞങ്ങളുടെ കൂടെ നാലു ദിവസവും കാണണം അപ്പോള് ഞങ്ങള്ക്കൊരു വിശ്വാസമായ ഒരാളെ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു വളരെ ഉപകാരമായിരിക്കും തിരിച്ച് ഞങ്ങൾക്കിങ്ങോട്ട് റിട്ടേൺ ഞങ്ങള് ഒരാള് എറണാകുളത്തും ഒരാള് കോട്ടയത്തും പിന്നെ ബാക്കിയുള്ളവര് കൊല്ലത്തും ആയിട്ട് ഞങ്ങളെ ഇറക്കണം അപ്പോള് അതിൻ്റെ എങ്ങനെയാണതിന്റെ റെയ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഞങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് പിക്കപ്പ് ചെയ്യണ്ടത് രാമംകുളങ്ങരെ കൊല്ലത്ത് നിന്നാണ് തിരിച്ച് ഞങ്ങളെ അവിടെ നിന്ന് പറയുന്നിടത്തും ഡ്രോപ് ചെയ്യണം പിന്നെ ഞങ്ങള്ക്ക് വയനാട് തന്നെ രണ്ടുമൂന്ന് സ്ഥലത്തൊക്കെ പോകാനുണ്ട് അപ്പോള് എങ്ങനാണ് അതിൻ്റെ ഒരു റെയ്റ്റും കാര്യങ്ങളുമൊക്കെ ഒന്ന് പറയേണ്ടത് എങ്ങനാണെന്നൊന്നൊന്ന് പറഞ്ഞുതരുമോ അപ്പോള് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വിളിച്ചത് അപ്പോള് അതിൻ്റെ റെയ്റ്റും കാര്യങ്ങളും എല്ലാമൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെ